ഏതൊരു ഭാഷയ്ക്കും അതിന്റേതായ ഒരു നിലവാരമുണ്ട് നമ്മൾ മലയാളികൾക്ക് മലയാള ഭാഷ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മലയാള ഭാഷ നമ്മുടെ പെറ്റ അമ്മയെ പോലെയാണ് നമ്മുടെ മാതൃഭാഷയാണ് മലയാള ഭാഷ മാധ്യമങ്ങളിലും വിദ്യാഭ്യാസ സാമ്പ്രദായത്തിലും മലയാള ഭാഷയ്ക്ക് മതിയായ പ്രാധാന്യം വളരെ കൂടുതലാണ് അതായത് ഒരു മലയാള ഏത് ഭാഷ ആവട്ടെ ഇംഗ്ലീഷ് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് പഞ്ചാബി മറാത്തി ഉറുദു കന്നഡ കൊങ്ങിണി ഏത് ഏത് ഭാഷയായാലും മലയാള ഭാഷ തന്നെയാണ് ഏറ്റവും നല്ലൊരു ഭാഷ മാധ്യമങ്ങളിൽ മലയാള ഭാഷ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെ സ്ഫുടമായി നമുക്ക് അത് മനസിലാവുകയും ചെയ്യും അതായത് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അന്യ ഭാഷേക്കാലും അറിയാവുന്നത് മലയാള ഭാഷയാണ് മലയാള ഭാഷ കേൾക്കുമ്പം നമുക്ക് കാര്യങ്ങളും അതായത് ഇൻഫോർമേഷനുകള് കറക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് അത് മനസിലാവുന്നതാണ് മലയാള ഭാഷ എന്ന് പറയുന്നത് എന്താന്ന് പറയാന് നമ്മുടെ മാതൃ ഭാഷയാണ് നമ്മുടെ മദർ ടങ്ക് അതായത് മാതൃഭാഷയാണ് മലയാള ഭാഷ മലയാള ഭാഷക്ക് വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്ന് പറയുമ്പോൾ പുതിയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇംഗ്ലീഷ് കാലഘട്ടത്തിൽ ഒക്കെയാണ് ജീവിക്കുന്നത് പക്ഷേ നമ്മൾ ഇപ്പോഴും മലയാള ഭാഷ എല്ലാ കാര്യങ്ങളും മലയാള ഭാഷ വിദ്യാഭ്യാസ സമ്പ്രദയങ്ങളില് പറയൂന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മൾ ഒരു വിഷയമാക്കി മലയാള ഭാഷ ആക്കുക പക്ഷേ എന്നാൽ തന്നെ എന്നാൽ തന്നെ ബാക്കി ഉള്ള വിഷയങ്ങൾ ഇംഗ്ലീഷിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് പഠിക്കേണ്ടതാണ് നമ്മൾ നമ്മൾ പുറം രാജ്യത്ത് പോകുമ്പോൾ നമ്മുടെ മാതൃഭാഷയുള്ള കാര്യങ്ങൾ ഒന്നും ആയിരിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ഭാഷ ബാക്കിയുള്ള വിഷയങ്ങളിൽ വന്നാൽ കൊള്ളാമെന്ന് പറയുന്നത് പക്ഷേ ഒരു നമ്മൾ ഒരു ബാങ്കിൽ ചെന്നു അല്ലെങ്കിൽ ഒരു എവിടെ എങ്കിലും ചെന്നു നമുക്ക് മലയാളത്തിൽ ഒരു സ ഒരു ഒരു റെസീപ്റ്റ് അല്ലെങ്കിൽ കത്ത് അല്ലെങ്കിൽ എന്തേലും എഴുതണോന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ മലയാള ഭാഷ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഏതൊരു മലയാളിയും നിർബന്ധമായിട്ട് മലയാള ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും എല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് മാധ്യമങ്ങൾ മലയാള ഭാഷയെന്ന് പറയുബോൾ നമ്മൾ ഉച്ചാരണം നമ്മൾ പഠിക്കുന്നതാണ് പുതിയ പുതിയ അറിവുകൾ പുതിയ പുതിയ അർത്ഥങ്ങൾ നാനർത്ഥങ്ങൾ പര്യായ പദങ്ങൾ എല്ലാം നമ്മൾ മലയാള ഭാഷയിൽ മലയാള ഭാഷ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മലയാള ഭാഷക്ക് മതിയായ പ്രധാന്യം കിട്ടുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത് പക്ഷേ വളരെ കഷ്ടം ആണ് മലയാള ഭാഷ ഇപ്പം ഒത്തിരി പേർ എല്ലാവരും ഇംഗ്ലീഷ് ഒക്കെയാണ് സംസാരിക്കുന്നത് മലയാള ഭാഷ ഉപയോഗിക്കുന്നത് തന്നെ വളരെ കുറവാണ് എന്ന് വേണം ഞാൻ പറയാൻ പക്ഷേ നമ്മുടെ മലയാള ഭാഷ നമ്മൾ അന്യഭാഷകളുടെ കൂടെ തന്നെ ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ് മലയാള ഭാഷ എന്ന് പറയുമ്പോൾ നമ്മളെ മാതൃഭാഷയാണ് അതിനെ നമ്മൾ നമ്മുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു ഭാഷ ഭാഷയാക്കി തന്നെ കാണണം കാണണം എന്നാണ് ഞാൻ പറയുള്ളു മലയാള ഭാഷ മലയാള അധ്യാപകർ സ്കൂൾ മാനേജ്മെന്റ് എല്ലാവരും മലയാള ഭാഷയെ അതിൻ്റെ ഈ അതിനു തുല്യം ബാക്കിയുള്ള ഭാഷകളിൽ തന്നെ തുല്യമായി കാണിക്കുക എന്നാണ് ഞാൻ പറയുള്ളൂ